ഇപ്പം കുട്ടികൾന്ന് പറഞ്ഞാൽ എപ്പഴും ചെറിയ ഇപ്പം ചെറുതായിട്ട് വളർന്നുവരുന്ന കുട്ടികള് മുതല് എല്ലാവരും ഫോണിൻ്റെ ഒരു അഡിക്റ്റായിട്ടാണ് മാർണെ ഫോണും ടെലിവിഷനും ടിവിയും എല്ലാം കണ്ടിട്ടാണ് കുട്ടികള് വളരുന്നത് അപ്പം നമ്മള് നമ്മടൊരു പ്രായത്തില് നമ്മള് എന്ന് വെച്ചാല് മണ്ണിലും അതിലും കളിച്ച് എന്താ പറയുക കുറച്ച് വ്യായാമത്തോടെയാണ് നമ്മള് നടക്കല് കാരണം പുറത്തൊക്കെ ഇറങ്ങി നടക്കും അങ്ങനൊക്കെ ഇപ്പം പിള്ളാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടിവി കണ്ട് ടിവി തുറന്ന് കഴിഞ്ഞാൽ കൊച്ചു ടിവി അല്ലെങ്കില് എന്തേലും വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പിലാണ് കാർട്ടൂണുകളും അല്ലെങ്കില് അങ്ങനെ എന്തേലു ഒക്കെ എൻറ്റർടൈൻമെൻറ്റായിട്ടുള്ള കാണു സാധനങ്ങള് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം അപ്പം അവരുടെ കണ്ണ് മാത്രം പ്രവർത്തിക്കുന്നു അപ്പം ഒരുപാട് അവര് കൺ ഇങ്ങനെയുള്ള ടെലിവിഷനൊക്കെ കാണുമ്പം അവരുടെ കണ്ണിന് നല്ല പ്രശ്നം ഉണ്ട് അതുപോൽതന്നെ എന്താ പറയുക അവര് ഒരു പണിയെടുക്കുന്നില്ലല്ലോ പണി മീൻസ് അങ്ങനല്ലാ അവര് എന്താ പറയുക നടക്കുന്നു ഓടുന്നും ചാടുന്നും ഒന്നുവില്ല അപ്പം അവർക്ക് കായിക പരമായതുകൊണ്ട് നല്ല ഇത് ഉണ്ടാവും എന്താ പറയുക ഒന്നും ചെയ്യാനുള്ള ഒരു ബ്രോയിലർ കോഴിപോലെയാണ് കാരണം നമ്മുടെ നാടൻ കോഴിയും ബ്രോയിലർ കോഴിയുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ലേ നമ്മളീ അതേപോലെ ആയിരിക്കും കുട്ടികള് വളർന്ന് വരുന്നത് കാരണം കണ്ണിനും അതുപോൽതന്നെ ശരീരത്തിനും അവര് ചിന്തിക്കുന്ന കാര്യങ്ങള് അങ്ങനെ കുറച്ചൊരു ടെലിവിഷൻ രീതിയിലുള്ളതാണ് അവർക്ക് അവര് നേരിട്ടൊന്നും കാണുന്നില്ല കാരണം അവർക്ക് അതിന് സമയം ഉണ്ടാവുന്നില്ല കാരണം ടിവീൻ്റെ ഉള്ളിലാണല്ലോ എല്ലാ ടൈമും അപ്പം അങ്ങനെയൊള്ള കുറച്ച് എന്താ പറയുക കുട്ടികൾക്ക് കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്